ഈ നാടകത്തിൻ്റെ പേരെന്താണ് ഈ നാടകത്തിൻ്റെ രചയിതാവ് ആരാണ് ഇതിൽ അഭിനയിക്കുന്ന അഭിനേതാക്കൾ ആരൊക്കെയാണ് ഏത് ചരിത്രത്തെ ആസ്പദമാക്കിയാണ് ഈ നാടകം രചിച്ചിട്ടുള്ളത് എന്നറിയാൻ കഴിയുമോ ഇതു വരെ എത്ര സ്റ്റേജിലീ നാടകം കളിച്ചു അതിൻ്റെ ഫീഡ് ബാക്ക് എന്തൊക്കെയാണെന്നു പറഞ്ഞാൽ നന്നായിരുന്നു